ആ ചേച്ചി ഞാൻ ഉണ്ടല്ലോ ഞാൻ കോളേജിൽ പഠിക്കുകയാണ് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ് എൻ്റെ പേര് ജെനി എന്നാണ് അപ്പോഴത്തേക്കിനും ഞാൻ ഇങ്ങനെ വീടിന് വാടകയ്ക്ക് നോക്കിക്കൊണ്ടൊരിക്കുക ആയിരുന്നു ഹോസ്റ്റല് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വീട് വാടകയ്ക്ക് നോക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചേച്ചിയുടെ അടുത്ത് തിരക്കിയാൽ മതി എന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു കഴിഞ്ഞ വർഷം എന്തോ അവർക്ക് വീട് ശരിയാക്കി കൊടുത്തത് ചേച്ചിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുണ്ണു അപ്പോൾ എനിക്ക് പറ്റിയ ഒരു വീടുണ്ടാവുമോ സ്റ്റുഡൻ്റ് ആണ് അങ്ങനെ എനിക്ക് ഉണ്ടല്ലോ ഒരുപാട് സൗകര്യമുള്ള വീടൊന്നും വേണ്ട അല്ല എൻ്റെ കൂടെ ഒരാളും കൂടെയുണ്ട് ഞങ്ങൾ രണ്ടു പേരുണ്ട് അപ്പം വലിയ സൗകര്യമുള്ള വീട് വേണ്ട ജസ്റ്റ് ഒരു ബെഡ്റൂം ഒരു കിച്ചൺ ഒരു ബാത്റൂം അങ്ങനെ ആയിട്ട് റെൻ്റ് അപ്പം എങ്ങനെ വരും ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്റ്റുഡൻ്റ് ആണ് അപ്പോൾ ഒരുപാട് ഇതാവരുത് മാസം രണ്ടായിരത്തിന് ആ ഒരു റേറ്റിന് കിട്ടുമോ അതോ കുറച്ചും കൂടെ ഇതാക്കാൻ പറ്റുമോ ഒരു ആയിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആ ആ ഒരാൾക്ക് അല്ലെ ഒരാൾ ആയിരത്തി അഞ്ഞൂറ് വച്ചിട്ട് മൂവായിരം ആ ചെയ്യാൻ പറ്റും ഇത് അപ്പം അ ഇത് അപ്പം എക്സാറ്റ് എവിടെ ആയിട്ട് വരും എൻ്റെ കോളേജിൻ്റെ അടുത്തൊക്കെയാണ് ചേച്ചി എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കിനും ഇപ്പം ചേച്ചി പറയുന്ന എൻ്റെ കോളേജ് അറിയാലോ അപ്പം ചേച്ചി പറയുന്ന വീടും കോളേജും ആയിട്ട് ഒരു എത്ര മണിക്കൂർ ദൂരം ഉണ്ടാവും അത്ര ഉണ്ടാവുള്ളു കോളേജിൽ പോകാൻ ഈ അടുത്തുള്ള വീട്ടുകാരൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ രണ്ടും ലേഡിസ് ആണ് അപ്പം വേറെ ബുദ്ധിമുട്ടുകളൊന്നും വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ആ ഇതെ എനിക്കാണെങ്കിൽ വീട് അല്ലാണ്ട് വീട് ഒരു പി ജി പോലെ കിട്ടണം എന്നു വച്ചാൽ ഏതെങ്കിലും വീടിൻ്റെ മേളിലോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് ഇപ്പം കൂടുകയും കൂടെ ഒരാൾ ഉണ്ടല്ലോ അല്ല വീട് അല്ലാണ്ട് പി ജി പോലെ ഇപ്പം ആരുടെ എങ്കിലും വീടിൻ്റെ രണ്ടാം നിലയിലോ അങ്ങനെയൊക്കെ താമസിക്കില്ലെ അപ്പം കുറച്ചും കൂടെ കൂടെ ഒരാളും കൂടെ ഉണ്ടല്ലോ ഇപ്പം ഞങ്ങൾ രണ്ടു പേരും മാത്രം ആവില്ലല്ലോ ആ അപ്പം വീട്ടുകാരും കൂടെ ഉണ്ടല്ലോ അതുകൊണ്ടായിരുന്നു അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അടുത്തുണ്ടാവുമോ എനിക്ക് എൻ്റെ കൂടെയുള്ള ആളോടും കൂടെ ചോദിക്കണം ഞാൻ ഡീറ്റെയിൽസ് തിരക്കാൻ വേണ്ടി വിളിച്ചതാണ് ചെയ്യാൻ പറ്റില്ലേ ആ വീടാണ് എന്നുണ്ടെങ്കിൽ ഏത് ഏത് ഇത് വരും ഐ മീൻ എത്ര റേറ്റ് എങ്ങനെ ആ വീട്ടുക്കാർ കൂടുതലാണോ പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ഓക്കെ അപ്പം എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട് അഥവാ ഇനി എന്തെങ്കിലും ഒരു ആവശ്യം വരുകയാണെന്നുണ്ടെങ്കിൽ ആ ഇതെ നമുക്ക് ഉണ്ടല്ലോ ആ വീട്ടിൽ താമസിക്കുന്നതിന് അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ അവിടെ വന്ന് താമസിക്കുകയാണല്ലോ അപ്പം എന്തെങ്കിലും പ്രൂഫോ അങ്ങനെ എന്തെങ്കിലും തരേണ്ടി വരുമോ ഇപ്പം ആധാറിൻ്റെ കോപ്പിയോ അങ്ങനെ എന്തെങ്കിലും തരേണ്ടി വരുമായിരിക്കുമോ കോളേജിൽ പഠിക്കുക അണെന്നുള്ളതിൻ്റെ ഒരു ഇത് മതിയായിരിക്കുമല്ലോ അല്ലാതെയുള്ള പേർസണൽ ഡോക്യൂമെൻസൊന്നും വേണ്ടായിരിക്കുമല്ലോ ഓക്കെ ഈ അടുത്തുണ്ടല്ലോ കടകളെന്ന് പറയുമ്പത്തേക്കിനും അത്യാവശ്യം നമ്മുടെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന താരത്തിലുള്ള കടകളുണ്ടാവില്ലേ ഹോസ്പിറ്റലോ ആ കടകളെ കൂടുതലിനെ കാട്ടിയും ഈ അത്യാവശ്യത്തിന് ഒരു ഹോസ്പിറ്റലുണ്ടോ വലുതല്ലെങ്കിലും ഒരു ജസ്റ്റ് ഒരു ഇങ്ങനെ പബ്ലിക് അങ്ങനത്തെ പോലെ ഓക്കെ ഓക്കെ